ഇപ്പോൾ സാങ്കേതിക വിദ്യയില് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാരണമെന്താണ് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തു തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണ് സ്മാർട്ട്ഫോണുകൾ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉപയോഗം എന്താണ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്കിപ്പോൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ആ പിന്നെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ യൂസെയ്യാം എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മള് മൊബൈൽ ഫോണാണ് യൂസെയ്യുന്നത് ഇൻറർനെറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം നമുക്ക് ഇൻറർനെറ്റിലൂടെ പലരീതിയിൽ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങള് സെർചെയ്യാൻ പറ്റുമൊ അതൊക്കെ നമുക്ക് സേർചെയ്യാം പിന്നെ നമുക്ക് ഇപ്പോൾ ഹോട്ടലുകളില് റൂമു ബുക്ക് ചെയ്യാൻ വേണ്ടീട്ട് സാധിക്കും പിന്നെ ടിക്കറ്റ് അതായത് ഇപ്പം നമ്മള് സിനിമാ ടിക്കറ്റ് അല്ലെങ്കില് ട്രയിൻ ടിക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് മൊബൈല് വഴി തന്നെ പൈസ അടയ്ക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊബൈലിലൂടെ തന്നെ നമുക്ക് ചെയ്യാനും വേണ്ടി സാധിക്കും ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ മണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ പേയ്മന്റുകളും നമുക്ക് ഫോണ് വഴി അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഷോപ്പിങ് നടത്തുവാണെൽ നമുക്ക് ഗൂഗിൾപേ വഴിയൊക്കെ പൈസ കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാൻ വേണ്ടിട്ട് സാധി സാധിക്കുന്നതാണ് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ നല്ല രീതിയില് ആൾക്കാര് മാറിയിട്ടുണ്ട്